ഹലോ പിന്നേ ഹലൊ ഞാൻ പ്ലംബറാണ് ഇന്നെനിക്കൊക്കത്തില്ല ഇന്നു സമയം ഒത്തരി ആയി ഇന്നു മഴ ഒക്കെയാണ് വരാൻ ഒക്കത്തില്ല ഏതു ഭാഗത്താണ് ലീക്ക്

റ്റാ റ്റ റ്റാപ്പിൻ്റെ അവിടെ ടാപ്പ് ആണോ ലീക്കായത് അതൊന്ന് അടച്ചു അടച്ചു അടച്ചിട്ടു എന്തുവാ നില്കുന്നില്ലെ വെള്ളം അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ തത്കാലത്തേക്ക് ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടി നിൽക്കുക നാളത്തേക്കു വരാം അതിനു പുതിയ പുതിയ ടാപ്പൊക്കെ വാങ്ങിക്കണം ആ പുതിയ അതിനൊത്തിരി പൈസ ആകും സ്റ്റീൽ ഒക്കെ മേടിക്കുന്നതിന് സാധാരണ എന്നാൽ എന്നാലും പത്തു അറുനൂറ് രൂപ ആവും നല്ലതിന് നല്ല ടാപ്പും ആണ് ആഹ് വാങ്ങിക്കണം പിന്നെ പൈപ്പിൻ്റെ ബലം നോക്കണം പൈപ്പ് എല്ലാം കൂടെ മാറി വാങ്ങണം എങ്കിൽ രൂപ ആയിരം രൂപാ പിന്നെ എൻ്റെ കൂലി ആവും മുന്നൂറ് രൂപാ ങ്ങേ എല്ലാം കൂടെ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ ആവും ഒരു ടാപ്പ് മാറുന്നെന് നല്ല ടാപ്പ് ആണേൽ ഏറ്റവും കുറഞ്ഞത് അതിൽ കുറയത്തില്ല ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരാം പൈസ ഇങ്ങു തന്നാൽ മതി ഞാൻ നാളെ മേ ഞാൻ നാളെ മേടിച്ചുകൊണ്ട് വരാം ആ ഓ ആ നാളെ അത്യാവശ്യം ഉണ്ട് നാളെ എപ്പളാണ് വരേണ്ടത് ആ നാളെ എനിക്ക് ഉണ്ട് പലയിടത്ത് ജോലി ഉണ്ട് പലരും ഇത് പോലെ വിളിച്ചോണ്ടിരിക്കുവാ ഒരിടത്തൊരു കക്കൂസിൻ്റെ അവിടെ ലീക്ക് അവിടെ ലീക്ക് ഇവിടെ ലീക്ക് എന്ന് പറഞ്ഞ് അതെ ഞാൻ നാളെ ഏതേലും ഒര് സമയത്തു ഞാൻ വരാം നിങ്ങള് ഞാൻ വരുമ്പോൾ വിളിക്കാം അല്ലാതെ ഇപ്പോൾ എന്തോ ചെയ്യാനാ അന്നേരം അവിടെ കാണണം എന്നാലെ എന്നാലെ അടുക്കളയുടെ അവിടെ ചെയ്യാൻ ഒക്കത്തൊള്ളൂ നല്ല നല്ല രീതിയിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടു ഒക്കെ ചെയ്യുവാന്നേ അതിനൊക്കെ നല്ല പൈസ ആവും ആ അത് ആ ഒട്ടും കുറയത്തില്ല ഞാൻ അല്ലാലോ കുറക്കേണ്ടത് കടക്കാരല്ലെ കുറക്കേണ്ടത് നല്ല ഓരോ പിന്നെ ഐ എസ് ഐ മാർക്ക് ഉള്ള സാധനം വേണമെങ്കിൽ അതിനൊക്കെ പൈസ ആവും ലോക്കൽ സാധനം വേണം എങ്കിൽ അതിനുള്ള പൈസ ആവും ആ നല്ല സാധനം എന്നാൽ രണ്ടായിരത്തോളം ആവും രൂപ ആ മതി എന്നാൽ നാളെ ഞാൻ വരാം കേട്ടോ കുഴപ്പം ഒന്നും ഇല്ല വൈ വൈകിട്ട് അങ്ങോട്ട് വരാം പൈസാ ഒര് രണ്ടായിരം രൂപ എടുത്ത് വച്ചേര് ഓക്കെ എന്നാൽ ശരി ശരി ഓ